ആ ശരിയാക്കാമേ ഹലോ തങ്കച്ചാ നിങ്ങൾക്ക് ഇച്ചിരി സ്ഥലം വേണമെന്നും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ ആ അതിനെക്കുറിച്ച് സ്ഥലം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ നമുക്കിവിടെ ഒരു കിലോമീറ്റർ ഉള്ളിൽ ആണ് ആ ആദായം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് ഉണ്ട് കുറച്ച് ഏലം ഉണ്ട് ആ മൈസൂര് ഇതും ഉണ്ട് പിന്നെ റോഡ് സൈഡിൽ ആ റോഡ് സൈഡിൽ റോഡ് ആയിട്ടെന്ന് പറയുമ്പോഴത്തേന് പത്തിരുപത് മീറ്ററിൻ്റെ അകം ആണ് റോഡ് മെയിൻ റോഡും ആയിട്ട് ആ പെര അത്യാവശ്യത്തിന് കൊള്ളാവുന്ന ഒരു പെര ഒക്കെയാണ് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റൊരു വീട് ആണ് ആ കട വെക്കാൻ കിട്ടുമോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അത് റോഡിൽ നിന്നൊരു ശകലം അല്പം തന്നാണ് വീടിരിക്കുന്നത് അപ്പം അത് അവിടം ഫ്രണ്ട് കൊണ്ട് നമ്മൾ എന്തേലും ചെറിയ ഒരു പണി ചെയ്താൽ റോഡ് ലെവലാക്കി കൊണ്ടിട്ട് ആ അങ്ങനൊരു ആ അത് ശരിയാണ് അങ്ങനൊരു സ്ഥലത്ത് ആ അത് ഉണ്ട് കേട്ടോ അങ്ങനൊരു സ്ഥലം കിടപ്പുണ്ട് പ്രകാശ് ആ ഇത് ആ അതിന് വില ഒക്കെ അവർ പറയാമെന്ന് പറഞ്ഞായിരുന്നു ഇതിപ്പം അത് അത് ശരിയാണ് കേട്ടോ നല്ല സൗകര്യം ഉള്ള ഒരു പെരയാണ് അത് പ്രകാശ് പ്രകാശ് ആ മ്മ് ആ വെള്ളം വെള്ളം കുഴൽ കെണറെ ഉള്ളു അവിടെ ആ അത് അത് പിന്നെ പെര എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഈ പെരെയ്ക്ക് എന്ന് പറയുമ്പോഴത്തേന് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റെ ഉള്ളു പിന്നെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അതിന് വില കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോഴത്തെ രീതിക്ക് നല്ല ഒരു വില കൊടുക്കണമല്ലൊ അതായത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ട് പതിനഞ്ച് സെൻറ്റും സ്ഥലമാണ് അപ്പം ഈ എണ്ണൂറ് ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മ്മ് പിന്നെ കുഴൽ കിണർ കുഴൽ കിണറാണ് ഇരുപതിന് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ ആ ഒരു അവർ എഴുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്

അഡ്വാൻസ് കൊടുക്കാം നമുക്ക് താമസിക്കാതെ തന്നെ കൊടുത്തേക്കാം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനവരോട് പറയാം അവരോട് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ അപ്പനും മോനും കൂടെ ആ അവർ മ്മ് ആയിക്കോട്ടെ അതിന് കുഴപ്പം ഒന്നും ഇല്ല ഇല്ല ആ നല്ല കാര്യമാണ് അത് അത് നല്ല ഈ ഭൂമിക്കെ പട്ടയം ഉണ്ട് പട്ടയം വേറൊരാളുടെ കയ്യിലിരിക്കുകയാണ് കേട്ടോ അത് അവിടെ നിന്ന് ആ അങ്ങനെ ഉണ്ട് ആ പട്ടയം കിട്ടും കിട്ടും കിട്ടും

അങ്ങനെ ചെയ്തേക്കാം അതിന് കുഴപ്പമില്ല പിന്നെ ആരേലും വേണം ഇനിയും ഇനിയും വേറെ വല്ലവരും ഒക്കെ കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ പോയി നമുക്ക് കണ്ടേക്കാം മ്മ് ആ ഓ ഒരു ആ ആ അതിന് എന്താണ് എന്നതൊക്കെ ആയാലും നമുക്ക് ഒന്നും കൂടെ ആരേലും വീടല്ലേ വീട് മേടിക്കും വീട് മേടിക്കുമ്പം എല്ലാവരും പോയി കണ്ടു തൃപ്തിപ്പെട്ടും ആ ആ മ്മ് ഒരല്പം മൊത്തത്തിലൊന്ന് ഒരു പെയിൻറ്റ് പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യം വരും കേട്ടോ പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതൊക്കെ മതി ആ ആ എന്നാലും നല്ല ഇപ്പം പെയിൻറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷത്തോളം ആയി അങ്ങനെ കിടക്കുകയാണ് ആ അപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ശെരിക്കും ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴുകി വൃത്തിയാക്കി വേണം പെയിന്റിംഗ് ചെയ്യാൻ മ്മ് ആ അതിനുള്ള ആളെ നമ്മൾ അതുകൊണ്ട് അത് നമുക്ക് താമസിക്കാതെ തന്നെ എന്താന്ന് വെച്ചാല് ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന് കുഴപ്പമില്ല നമുക്കായാലും ആ അതെ ഓക്കെ